തൊഴിൽ ഇല്ലാത്തതുകൊണ്ടാണല്ലോ ദാരിദ്രം ഉണ്ടാകുന്നത് കയ്യിൽ പൈസയില്ലാതെ വരുമ്പം നമുക്ക് ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാതെ ആവും ഭക്ഷണം കിട്ടാതെ വരും ആരും തരാൻ ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ കിട്ടുന്നയിടത്തു നിന്ന് ചോദിച്ചാൽ അവർ തന്നില്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അവടെ നിന്ന് അത് എടുത്ത് കഴിക്കാൻ നോക്കും അപ്പോൾ അത് ആ ഭക്ഷണത്തിൻ്റെ ഉടമസ്ഥൻ അതൊരു കുറ്റമായിട്ട് കാണുകയും നല്ല മനസ്സുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കുഴപ്പം ഇല്ല കഴിച്ചോ എന്നു പറഞ്ഞ് പിന്നീട് വിശക്കുമ്പോൾ കഴിക്കാനുള്ള ഭക്ഷണവും കൊടുക്കും ചിലരെന്ത് ചെയ്യും അതിനെ പോലീസിൽ ഏൽപ്പിക്കും ചിലപ്പോൾ ഉപദ്രവിക്കും ചിലപ്പോൾ നാട്ടുകാരെ വിളിച്ചുകൂട്ടി നാണം കെടുത്തും അപ്പം ജോലി ഇല്ലാത്തതുകൊണ്ടും കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടും ആണ് അയാൾക്കത് ചെയ്യേണ്ടിവന്നത് അപ്പോൾ തൊഴിലില്ലായ്മയാണ് ഒരു പ്രധാന കാരണം